ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ആറ് ലക്ഷത്തി പന്ത്രണ്ടിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അഞ്ച് ലക്ഷത്തി പതിമൂവ്വായിരത്തി ഇരുന്നൂറ്റി പതിനാല്